ഹലോ ആ ആ ആ ഓ ഓ ആ ആ ഉണ്ടായിരുന്നെങ്കില് ഞാനത് അത് അതിനെപ്പറ്റി ഞാൻ മുമ്പേ വിളിച്ചായിരുന്നു രാവിലെ ഞാൻ വിളിച്ചായിരുന്നു ആ ആ അപ്പോള് അടുത്തയാഴ്ച ചെയ്തേക്കാം അതായത് നമ്മള് നമുക്കൊന്ന് നോക്കണ്ടേ അതായത് എനിക്ക് അഞ്ച് ആ അഞ്ചു മുറിഅഞ്ചു മുറിയുണ്ട് അഞ്ചു മുറിയുമതിൻ്റെ ബാക്കിയുംകൂടെ തീരുമ്പോള് നമ്മക്ക് ഏറെക്കുറേ എത്ര രൂപ എസ്റ്റിമേറ്റാകും എല്ലാമുണ്ട് അതിൻ്റെ എത്ര എസ്റ്റിമേറ്റ് വരും ഇതെല്ലാവുമെന്നു നോക്കണം അത് നോക്കിയിട്ട് വേണം തീരുമാനിക്കാനേ ആ അപ്പോള് നാളെ നേരം കിട്ടുമ്പോള് ഇറങ്ങൂ ഇപ്പോള് എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റിന് ചെയ്യുന്നേ

മ്മ് മ്മ് ആ ആ മ്മ് ആ ഉവ്വാ ഉവ്വാ മ്മ് മ്മ് മ്മ്

അത് എനിക്ക് നൊയമ്പൂട്ടല് കഴിയുന്നപ്പോഴേക്കും എനിക്കൊരു വെഞ്ചരിപ്പുള്ളതാണ് അന്നേരം ഒക്കെ അതു തീരണം അന്നേ അതിന് ഇപ്പോള് ഇനിയിപ്പോള് മാക്സിമം ഒരു പത്ത് ഇരുപതു ദിവസം പത്തുമുപ്പതു ദിവസംകൂടെയേ ഉള്ളു അതിന്റെയകത്ത് ഇരുപത്തിയഞ്ചിനു തീരണം ഇരുപത്തിയഞ്ച് ദിവസംകൊണ്ട് തീർക്കണം മ്മ് അപ്പോള് മ്മ് പുറത്തുനിന്ന് വേറെ ആളിനെ കൂട്ടിയാലും കുഴപ്പമില്ല ആളിനെക്കൂട്ടി ആണേലും അത് തീർത്ത് ഇരുപത്തിയഞ്ചിനുമുമ്പു തീർക്കണം ആ അങ്ങനെ ആ ആ കട്ടപ്പനയില്നിന്നെടുക്കാം കട്ടപ്പനയില്നിന്നെടുക്കാനിപ്പോഴെന്നു പറഞ്ഞാല് കുറച്ചെനിക്ക് ഇരിപ്പുണ്ട് വയറിങ്ങും കാര്യങ്ങളും കുറച്ചിരിപ്പുണ്ട് അതിന്റകത്തത് ബാക്കി എടുത്താല് മതി കട്ടപ്പനയില്നിന്നെടുക്കാം നാളെ നാളെ നമ്മള്ക്കൊന്നു പോയി നോക്കാം ആ ഉപയോഗിക്കാത്ത സാധനമാണ് ആ ഉപയോഗിക്കാത്ത സാധനമാണ് എടുത്തുവച്ചിരുന്നെന്നു മാത്രമേ ഉള്ളു അപ്പോള് അത് അതിൻ്റെ നോക്കിയിട്ട് കണക്കെടുത്തുകഴിഞ്ഞാലേ അതിൻ്റെ അതിൻ്റെ ബാലൻസ് മേടിക്കണോ ആ ആ ആ ആ അതെ അതുതന്നെ ആ വേണമല്ലോ അതു നോക്കിയിട്ടു ബാക്കി ചെയ്യാം ഓക്കെ ആ അങ്ങനയാണ് അ അ ആ അങ്ങനെ അങ്ങനെ ചെയ്യാം ആ ആ ആ അതാവുമ്പോള് വലിയ കുഴപ്പമില്ലാതെ മ്മ് ആ ആ മ്മ് മ്മ് അ അ മ്മ്

ആ ഇപ്പോള് എങ്ങനെയാണ് നമ്മള് അതിൻ്റെ കൂലിയെങ്ങനെയാണ് ഇപ്പോള് പറയുന്നേ ഏറെക്കുറേ എത്ര രൂപാ എസ്റ്റിമേറ്റ് എത്ര രൂപാ ആവുമെന്നു വല്ലതും അറിന് ഒന്ന് പറയാന് പറ്റുമോ എത്ര ഒരു ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കൂട്ടിക്കോളൂ ആ ആ ഓക്കെ ആ മ്മ് അ അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റാകും മ്മ് ആ വേണം വേണം എല്ലാം വേണം അപ്പോള് അത് നോക്കിയിട്ട് ആ നോക്കിയിട്ടു പറഞ്ഞാല് മതി ആ മ്മ് മ്മ് ആ മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് മ്മ് അതേ അതേ അത് മോട്ടോര് മോട്ടോര് സഹിതം എടുക്കണം എല്ലാം അതെല്ലാംകൂടെ കൂട്ടി എടുക്കണം അതാണു വേണ്ടത് മ്മ് ആ എല്ലാംകൂടെ കൂട്ടി എടുക്കണം അങ്ങനെയാണ് ഹാ ഉവ്വാ ഉവ്വാ ആ ഹാ അ ആ പണിയാം ആ സാരമില്ലെന്നെ പൈസ ആകട്ടെ പൈസ ആയാല് നമ്മള് നല്ല സാനങ്ങളെടുക്കുക പൈസ ആകും ആകൂമല്ലോ എടുക്കുമ്പോള് മ്മ് ആ അ അ മ്മ് ആ അതു കുഴപ്പമില്ല മ്മ് അത് നമ്മള്ക്ക് അങ്ങനെയ്യാം ഏ മ്മ് ആ ആ മ്മ് ആ ഞാനേ ഒരു സെക്കൻറ്റ് വയ്ക്കരുത് ഞാനൊന്ന് ഇവിടെയൊന്നു ചോദിക്കട്ടെ ഒരു ചോദിച്ചിട്ടു പറയാവേ ആ ആ ആ ഇപ്പോള് ഇപ്പോള് വയ്ക്കല്ലേ ഞാനിപ്പോള് പിന്നെ ചോദിച്ചിട്ട് പറയാവേ ആ മ്മ് മ്മ് ആ അല്ലെങ്കില്പ്പിന്നെ ശരിയാകുകേലല്ലോ മ്മ്

ആ അപ്പോള് അങ്ങനെ

ആ നില്ക്കൂ നില്ക്കൂ ഒരാള് ദേ ഓടി വരുന്നുണ്ടേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് അവരോടേ ആ അതുഴിഞ്ഞിട്ട് ഞാൻ പറയാവേ ആ ആ എന്നാല് സ്റ്റോപ്പെയ്യാം അല്ലെങ്കിലേ മ്മ് ആ അതെ അതെ അതെ ആ ആ അതിനെന്നാ നമ്മള്ക്ക് ഒന്നോ രണ്ടോ പേര് കൂടിയാലും സാരമില്ലല്ലോ ഓക്കെ ആ ഇത് മതിയായിരിക്കും എന്നാല് നമുക്കു വച്ചാലോ ആ ആ ആ ആയിക്കോട്ടെ ആ മ്മ് ഓക്കെ ഓക്കെ എന്നാല് എന്നാല് അങ്ങനെ എന്നാല്പ്പിന്നെ എന്നാല് വച്ചോട്ടെ ഓക്കെ